ഹലോ ഞാൻ ഇന്നലെ ഒരു പാൻസിന് ഓഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡര് നമ്പർ ബി സി ഡി പന്ത്രണ്ട് ഇരുപത്തി നാല് മുപ്പത്തി ആറ് അതിൽ ബ്ലാക്ക് കളർ പാൻസാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ടൈപ്പ് ചെയ്തു വന്നപ്പോൾ അത് ബ്ലൂ കളർ ആയിപ്പോയി അത് മാറ്റി എനിക്ക് ബ്ലാക്ക് കളർ പാൻസ് തന്നെ തരാനുള്ള എന്തെങ്കിലും ഒരു ഒരു കാര്യം ചെയ്യാന് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എങ്കിൽ അത് നന്നായിരുന്നു എനിക്ക് അതായിരുന്നു ആഗ്രഹം കാരണം എന്റെ കൈയിൽ ബ്ലൂ കളര് പാന്സ് കുറേ എണ്ണം ഉണ്ട് അപ്പോൾ ബ്ലാക്ക് കളർ കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അപ്പോൾ എന്റെ ഓഡര് നമ്പറ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊന്ന് ചെയ്തു അതൊന്ന് മാറ്റി തരുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കുറച്ചു നേരം ഞാൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം എന്താണെന്ന് വച്ചാൽ ഒന്ന് സംസാരിച്ചതിനു ശേഷം എനിക്ക് ഒരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ വളരെ അധികം നന്നായിരുന്നു